എൻ്റെ പേര് ഗായത്രി ഞാനൊരു മലയാളി ആണ് ഒരു അദ്ധ്യാപികയുമാണ് അതുകൊണ്ട് തന്നെയാണോ എന്നെനിക്ക് അറിയില്ല ഞാൻ മലയാളത്തെ വളരെയധികം സ്നേഹിക്കുന്നു മലയാളത്തെ മാത്രമല്ല മലയാളികളെയും സ്നേഹിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഞാനെൻ്റെ നാടിനെ വളരെയധികം സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് കവിത എഴുതുക കഥ എഴുതുക പാട്ട് പാടുക തുടങ്ങിയവയൊക്കെയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുകൾ ഉണ്ട് എന്ന് പറയത്തക്ക കഴിവുകളാണ് ഇതൊക്കെ കുഞ്ഞുനാളിൽ പോയ സ്ഥലങ്ങളിലെക്കുറിച്ചും കണ്ട ആളുകളെക്കുറിച്ചും ഒക്കെ കവിതയും കഥയും ഒക്കെ എഴുതാറുണ്ട് പിന്നെ ഞാൻ മറ്റുള്ളവരെ മനസ്സിലാക്കുക അവരുടെ സാഹചര്യം അറിഞ്ഞ് പെരുമാറുക അതായത് സഹ സഹകരണമനോഭാവം സഹജീവി സ്നേഹം പൗരത്വ ബോധം തുടങ്ങിയവയൊക്കെ ഉള്ള ഒരു ആളാണ് എന്നുള്ളത് എനിക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാനൊരു നല്ല ഭാര്യയും നല്ല അമ്മയും നല്ല മകളും മരുമകളും ആണെന്നുള്ളത് എനിയ്ക്ക് അഭിമാനത്തോടെ പറയാവുന്ന എൻ്റെ ഒരു ശേഷി ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്